അത്താഴം ഉണ്ടാക്കുമ്പം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അടുക്കളയിലെ വെള്ളം കുറക്കാൻ ശ്രമിക്കുക പച്ചക്കറി കഴുകുന്ന വെള്ളം അതുപോലെ തന്നെ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ചെടികൾക്കായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാത്രത്തിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിട്ട് കഴുകുമ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗത്തെ കുറക്കുവാൻ സാധിക്കും അത്പോലെ തന്നെ പച്ച പച്ചക്കറികളിലെ വേസ്റ്റ്കൾ നമ്മുടെ ചെടികൾക്ക് നൽകുന്നതിലൂടെ ചെടികൾ കൂടുതൽ സമൃദ്ധമായി വളരും